വിദ്യാഭ്യാസ ലോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുടർപഠനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഏത് കോഴ്സാണോ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ ഡോക്ടറിന് ഡോക്ടറിനു പഠിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അഞ്ചാറ് ലക്ഷം രൂപൻ്റെ മുകളിൽ വരും അപ്പം നമുക്കത്രയും പൈസ നമ്മുടെ വീടുകളിൽ എന്തായാലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുക്കുന്നെയാണ് വിദ്യാഭ്യാസ ലോൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെങ്ങനെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് എടുത്ത കുറെപ്പേരുണ്ട് ഇഷ്ടംപോലെ പേർ വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ പഠിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ബാങ്കിൽ കൊണ്ട് പോയി കാണിച്ചുകഴിഞ്ഞാൽ ഏത് വിഭാഗത്തിലേക്കാണോ അതിനനുസരിച്ചുള്ള ലോൺ ആണ് അവർ ചെയ്തുതരിക അപ്പം എടുത്ത ആൾക്കാരുണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ നമ്മളാണ് അത് എന്ത് ചെയ്യാ ജോലി കിട്ടിയതിനു ശേഷം നമ്മൾ തന്നെ അടക്കണംന്നാണ് വിദ്യാഭ്യാസ ലോണിൻ്റെ ഒരു ഇത്